എനിക്ക് ദൂരസ്ഥലങ്ങളൊക്കെ കൂ കൂടുതൽ ഇഷ്ടമാണ് എന്ന് വെച്ചാൽ നമ്മൾ ദൂരെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിന് എന്തോ ഒരു ഉല്ലാസമാണ് അപ്പം നമ്മൾ യാത്ര യാത്ര കൂടുതലായിട്ട് ഇഷ്ടപ്പെടണം പെടുന്നോരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ നമ്മൾ യത്രേയിലെ നമുക്ക് എല്ലാം മറന്ന് ഒരു ഒരു ബസ് അത് ഒരു ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ ദൂരെ പോവാനാണ് എനിക്കിഷ്ടം അപ്പം ആ ബസ്സിൽ ഒരു പാട്ട് കേട്ടിട്ട് നല്ല മെലഡി ആയ പാട്ട് അത് നമ്മളെ ദുഖങ്ങളും എല്ലാം മറന്ന് നമുക്ക് യാത്ര ചെയ്യാം എനിക്ക് കൂടുതൽ ഇഷ്ടം അമ്പലങ്ങളൊക്കെ സന്ദർശിക്കാനാണ് ഇപ്പോൾ ഞാൻ മുരുഡേശ്വര അങ്ങനത്തെ ദൂരെയുള്ള അമ്പലത്തിലൊന്നും സന്ദർശനം നടത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെത്ത ദൂരെയുള്ള അമ്പലത്തിൽ സന്ദർശനം നടത്താനാണ് എനിക്കിഷ്ടം പിന്നെ കൂടുതലായിട്ട് എനിക്ക് മറ്റ് ഓരോ പ്ലേസുകൾ കുത്തബ് മിനാർ അങ്ങനെ ഓരോ പ്ലേസുകളൊക്കെ പോവാനാണ് ഇഷ്ടം ആ പ്ലേസിലെ അവ് അവിടെ നമുക്ക് മനസ്സിനൊരു നല്ലൊരു ഉന്മാദം കിട്ടും നമ്മളെ നമ്മുടെ സങ്കടങ്ങളെല്ലാം മറന്ന് നമുക്ക് ഒരു ഫ്രഷ് എയർ ആ നമ്മുടെ ദൂര യാത്രയിൽ നമുക്ക് ലഭിക്കും അപ്പോൾ അപ്പോൾ നമ്മളെ ഇപ്പം സ്കൂളിൽ ഒക്കെ നമ്മൾ പഠിക്കുമ്പോ പഠന യാത്രയൊക്കെ പോയിട്ടുണ്ട് അത് നമ്മൾ ആ സമയമാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആ സമയത്ത് നമുക്ക് ആ സമയത്ത് നമുക്ക് നമ്മുടെ കൂട്ടുകാരൊന്നിച്ചിട്ട് നമുക്ക് കളിച്ച് ചിരിച്ച് പോകുന്ന ഒരു പ്രായം അ അന്ന് നമ്മൾ ആടിയും പാടിയും രസിച്ചത് ഇപ്പോഴും ഓർമ്മയിലുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഉള്ള യാത്രകൾ ഇങ്ങനെയുളള യാത്രകൾ നമ്മളെന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കും ഞാൻ ഇപ്പോഴും ആ അന്നത്തെ കാലം ആലോചിക്കലുണ്ട് ഇന്നും അതെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ബസ് മറ്റേ ഇങ്ങനെ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ യാത്ര ചെയ്യാനാണ് കൂടുതലിഷ്ടം എന്നുവെച്ചാൽ നമുക്ക് ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ട് പോകാം ആ ഡാൻസ് ഒക്കെ നമുക്ക് നല്ല മനസ്സിനൊരു നല്ലൊരു സന്തോഷമാണ് യാത്രകളിൽ നമുക്ക് കിട്ടുന്നത് ഞാൻ കൂടുതലായിട്ട് കുറേ നല്ല നല്ല പാർക്ക് അങ്ങനത്തെ കുറേ സിൻ അങ്ങനെ ദൂരെ പോയിട്ട് അങ്ങനത്തെ കുറേ സന്ദർശിക്കാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ സന്ദർശിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ആ ഒരു സ്ഥലത്തിന് എന്താണ് പ്രത്യേകത അങ്ങനെ ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകത ഉണ്ട് നമ്മുടെ ഇവിടെ കാസർഗോസ് തന്നെ കാസർഗോഡിൽ നമുക്ക് ഇവിടെ ബേക്കൽ ഫോർട്ട് ഉണ്ട് ആ ബേക്കൽ ഫോർട്ടിൻ്റെ ഇതുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്തിനും നമുക്ക് അതിൻ്റെതായ ഒരു നേച്ചർ ഉണ്ട് അപ്പോൾ ആ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ യാത്രകൾ ഏറ്റവും മനോഹരമാണ് നമ്മുടെ മനസ്സിനെ കുളിർമ്മപ്പെടുത്താനാണ് യാത്രകൾ നമുക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ യാത്രകൾ ഒഴിവാക്കാതിരിക്കുക ട്രെയിൻ യാത്ര ട്രെയിനിൽ യാത്ര ചെയ്യാൻ വളരെ നല്ലൊരു ഇതാണ് അപ്പം ട്രെയിനിൽ മറ്റേ ഗുഹയിലോക്കെ നം ഞാനോക്കെ പോകുമ്പോൾ പറശ്ശിനിക്കടവ് പറശ്ശിനിക്കടവ് പോകുമ്പോൾ അവിടെ ഒരു ഇടയിലൊരു ഗുഹ ഉണ്ടായി ഞാൻ ഉച്ചത്തിൽ കരഞ്ഞു അയ്യോ എനിക്ക് കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു നാളിലാണ് പോയത് അപ്പോൾ അത് ഗുഹയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ഇപ്പം നമുക്ക് അത് ഓർത്ത് ചിരിക്കാനൊരു ഇത് അപ്പോൾ ട്രെയിനിലൊക്കെ നല്ല ഒരു ക്ഷീണം ആവില്ല ട്രൈനിൽ പോയാൽ അയിന് ട്രെയിൻ യാത്ര കൂടുതലിഷ്ടപ്പെടുന്നുണ്ട് പിന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ കുളിർമ്മയായിട്ട് വയ്ക്കാൻ നമ്മൾ ഉല്ലാസ യാത്രയ്ക്ക് പോവണം ആ ഉല്ലാസ യാത്രയിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം അത് ഒരു വേറെ തന്നെയാണ് പക്ഷേ അത് തന്നെ ഉള്ളപ്പോൾ സ്കൂളിൽ നിന്ന് പോവുന്ന പഠനയാത്ര കുട്ടികളൊക്കെ പഠനയാത്രയ്ക്ക് വിടുന്നതാണ് നല്ലത് അപ്പോൾ കുട്ടികൾ അവരൊന്നിച്ച് ഇപ്പം നമ്മൾ സന്തോഷിച്ച പോലെ തന്നെ കുട്ടികൾ സന്തോഷിക്കണം അപ്പോൾ എൻ്റെ കുട്ടികൾ ഉണ്ട് രണ്ട് കുട്ടികൾ അപ്പം അവരെ ഞാൻ എല്ലാ വർഷവും പഠനയാത്രയ്ക്ക് വിടും അപ്പം അവർ ഇന്നത്തെക്കാലത്ത് ഇപ്പം പഠനയാത്രയ്ക്ക് നല്ലവണ്ണം പൈസ ആവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ കുറേ അപ്പം മൂവായിരം നാലായിരം രൂപ അങ്ങനെ ദൂരെ യാത്രയ്ക്ക് പൈസ ആവുന്നുണ്ട് പക്ഷേ ആ ആ പൈസ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് കാരണം കുറേ പാവപ്പെട്ട കുട്ടികൾക്ക് പോവാൻ പറ്റുന്നില്ല ഇന്നാൾ ഞാൻ പത്രത്തിൽ വായിച്ചു ഒരു കുട്ടിക്ക് പഠനയാത്രയ്ക്ക് പോവാൻ പറ്റാത്ത കുട്ടി കുട്ടി സൂയിസൈഡ് ചെയ്തു എന്ന് പക്ഷേ അത് ആ ഒരു വിഷമം കുട്ടികൾക്ക് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പഠനയാത്രയൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളാക്കണം അപ്പോൾ കുട്ടികൾക്ക് ആ ഒരു എല്ലാ കുട്ടികളെയും കൊണ്ട് പോകാനുള്ള ആ ഒരു നിലയിൽ പിന്നെ ഞാൻ കൂടുതലായിട്ട് എല്ലായിടത്തും പോവൽ ഇങ്ങനെ കുറവുള്ള വ്യക്തിയായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് എല്ലായിടത്തും പോവനൊരാഗ്രഹമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ദൂരെയൊക്കെ പോയാൽ നമ്മുടെ മനസ്സ് മനസ്സിൽ കുറേ ഇപ്പം എല്ലാവർക്കും അവരവരുടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ട് ആതുകൊണ്ട് നമ്മള യാത്രയാണ് അതുകൊണ്ടാണ് ഞാൻ അധികം പോകുന്നത് ഇഷ്ടപ്പെടുന്നത് പോവാന് പിന്നെ നമ്മൾ എപ്പോളും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കേണ്ടത് അപ്പം മറ്റുള്ളവർ നമ്മളെ ഒന്നിച്ച് നമ്മളെ ഒന്നിച്ച് പോകുന്നവരെ സന്തോഷിപ്പിക്കുക അങ്ങനെ അപ്പോൾ യാത്രയിൽ നമുക്ക് ഒരുപാട് സന്തോഷത്തിലൂടെ ഒരുപാട് വ്യക്തികളെ പരിചയപ്പെടാൻ പറ്റും ഒരുപാട് ഭക്ഷണങ്ങൾ അപ്പോൾ നമ്മൾ ഇവിടെ ഈ ജില്ലയിൽ ഇല്ലാത്ത വസ്തു ഭക്ഷണമായിരിക്കും മറ്റേ ജില്ലയിൽ അപ്പോൾ വെറൈറ്റി ഫുഡ് നല്ല ഭക്ഷണങ്ങള് നമുക്ക് കാ കഴിക്കാം പിന്നെ യാത്ര എല്ലാ ക്ലാസ്സിൻ്റെ അവരെ നമ്മൾ എന്താണ് പറയുക മീഡിയം ക്ലാസ് ലോ ക്ലാസ് അങ്ങനത്തെ വ്യക്തികൾ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം നമ്മളെക്കാളും താഴ്ന്ന് സങ്കടമുള്ള ആൾക്കാരെ നമുക്ക് യാത്രയിലൂടെ കാണാൻ പറ്റും ഒരു നമ്മൾ എവിടെയെങ്കിലും പോകുന്ന ഇപ്പം ട്രെയിനിൽ തന്നെ എല്ലാ മനസ്സിൻ്റെ ആൾക്കാരുണ്ടാകും സങ്കടത്തിന്റെയും സന്തോഷം അങ്ങനെ അപ്പോൾ നമുക്ക് യാത്രയിൽ നമുക്ക് പല വ്യക്തികളേയും പരിചയപ്പെടാൻ പറ്റും ഒരു പ്രാവശ്യം നമ്മൾ യാത്രയിൽ പോയാൽ ആ വ്യക്തികളായിരിക്കില്ല പിന്നൊരിക്കൽ നമ്മൾ ആ ബസ്സിൽ കയറുന്നത് അങ്ങനെ യാത്രക്കാർ നമ്മൾ ഒന്നിച്ചുള്ള യാത്രക്കാർ ഒന്നിച്ച് അവരുടെ സന്തോഷവും സങ്കടവും ഒക്കെ നമ്മൾ പങ്ക് വയ്ക്കുമ്പോൾ നമുക്കുള്ളിൽ എന്താണ് പറയുക നം അ അവർ അവരുടെ സങ്കടം നമ്മൾ ഏറ്റെടുത്ത പോലെയായി അതുപോലെയാണ് നമ്മുടെ സങ്കടം നമുക്ക് അവരോടും പറയാനും സന്തോഷിക്കാനും നമുക്ക് ഈ യാത്രകൾ ഒരുപാട് ഗുണം ചെയ്യും യാത്ര ചെയ്യുമ്പോൾ അതിനുള്ള ഒരു ഉന്മേഷം ഒന്ന് വേറെ തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും വിനോദയാത്രയ്ക്ക് പോവണം വിനോദയാത്ര ഞാൻ പറയുന്നത് മാസത്തിലൊരിക്കൽ മാസത്തിലൊരു ഞായറാഴ്ച്ച ഞായറാഴ്ച കുടുംബത്തോടൊപ്പം പുറത്ത് പോവണം അത് ദൂരെ പോവണമെന്നില്ല ഒന്നുമില്ലെങ്കിൽ അടുത്തുള്ള ഒരു കടപ്പുറം പിന്നെ പാർക്ക് അങ്ങനെ ഓരോരോ മാസത്തിൽ ഓരോ ആഴ്ച നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോവാം അപ്പോൾ ആ ഒരു ആ യാത്രയിൽ നമുക്ക് എന്ത് ആണ് നമുക്ക് ഒരു പ്രത്യേകത ഉണ്ടായത് പ്രത്യേകത തോന്നിയത് അതിനെക്കുറിച്ച് നമ്മൾ ഒരു ചിന്തിക്കാം നമ്മൾ കുട്ടികൾക്കും യാത്ര ഇഷ്ടപ്പെടണം യാത്രയിൽ ഇപ്പോൾ ചില ആൾക്കാർക്ക് യാത്രയിൽ ഒരുപാട് ക്ഷീണം വരുന്നുണ്ട് ഛർദ്ദി വരുന്നുണ്ട് അപ്പം അത് എവിടെയും പോവാത്തത് കൊണ്ടാണ് അങ്ങനെ മടിച്ചിരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ കുട്ടികളെല്ലാം നമ്മൾ ചെറുത് ഇരിക്കുമ്പോഴേ നമ്മൾ ദൂര യാത്രയ്ക്ക് കൊണ്ട് പോവണം അപ്പം അവർക്കത് ശീലമാവും എൻ്റെ മോൾ യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കുക ഉണ്ടായി അപ്പം ഇപ്പോൾ യാത്ര ചെയ്തിട്ടിപ്പോൾ ശീലമായി ഞാനും അതെ അപ്പോൾ എനിക്ക് ആരെങ്ങും ഛർദ്ദിക്കുന്നത് കാണുമ്പോഴാണ് ഛർദ്ദിക്കാൻ വരുന്നത് അപ്പോൾ അതുകൊണ്ട് യാത്ര എന്തായാലും നമ്മുടെ ലൈഫിൽ യാത്ര ചെയ്യുന്നതാണ് നമുക്ക് ഒരു ആ അതുകൊണ്ട് പല സ്ഥലങ്ങളിലും സന്ദർശിച്ചിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ നമ്മുടെ മനസ്സ് നന്നായി കൂൾ ആവണം അതുകൊണ്ട് യാത്രകൾ എപ്പോളും നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം